വിനോദസഞ്ചാരികൾക്ക് കേരളത്തിൻ്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് അറിയാൻ കഴിയുന്ന മ്യൂസിയങ്ങളും പ്രധാ അതായത് പ്രാദേശിക ഉത്സവങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അമരാവതി മ്യൂസിയം യുഗാദി ഉത്സവം അങ്ങനെയുള്ള ഒരുപാട് ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വിനോദസഞ്ചാരികൾ ദൂരെന്നൊക്കെ കാണാൻ അതായത് ഇങ്ങനത്തെ ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ വരുമ്പം അവർക്ക് ഭയങ്കര ഒരു രസമാണ് കാരണം അവരുടെ രാജ്യത്ത് ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉത്സവം പിന്നെ മേളകള് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ൽ മ്യൂസിയം മ്യൂസിയങ്ങൾ ഒക്കെ ഉണ്ടാകും പക്ഷെ എന്തായാലും നമ്മുടെ ഇവിടുത്തെ മ്യൂസിയം പോലെ ആയിരിക്കില്ലലോ അവരുടെ അപ്പം എല്ലാം ഇപ്പം നമ്മുടെ പിന്നെ സാഹചര്യങ്ങളും എല്ലാം അവരുടെയും എല്ലാം ഭയങ്കര വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടുത്തന്നെ വിനോദസഞ്ചാരികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര താത്പര്യവും കാര്യങ്ങളൊക്കെയായത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിലേക്ക് കൂടുതലായിട്ടും വിനോദസഞ്ചാരികൾ ഇപ്പം സ്ഥലങ്ങൾ കാണാനാണെങ്കിലും അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഉത്സവങ്ങൾ മ്യൂസിയങ്ങൾ അങ്ങനെയുള്ള പാർക്കുകൾ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വരുന്നതും അതുകൊണ്ടുതന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം കേരള ഫോക്ക്ലോർ മ്യൂസിയം പിന്നെ നേപ്പിയർ മ്യൂസിയം തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം കാണാൻ ഒക്കെ ഒരുപാട് വിനോദസഞ്ചാരികൾ ഒക്കെ വരാറുണ്ട്